നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ഭാഷയായ മലയാളത്തിനെ തന്നെയാണ് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ സംസാരിക്കുന്നെയോ എഴുതുന്നതും എല്ലാം മലയാളമാണ് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ഞാൻ പറയുന്നത് മലയാളം മലയാള മീഡിയത്തിൽ പഠിക്കുന്നത് ഒരു ഒരു മോശം കാര്യമായിട്ട് തോന്നുന്ന കുറെ രക്ഷിതാക്കളുണ്ട് ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പഠിക്കണം അതായത് ഇംഗ്ലീഷ് തന്നെ പഠിക്കണം അങ്ങനെയെല്ലാം ഉള്ള തോന്നലുകളിൽ ഒരുപാട് രക്ഷിതാക്കളുണ്ട് സ്കൂളുകളിൽ മലയാളം നിർബന്ധമായിട്ടും വേണം അതുമല്ല മലയാള മീഡിയത്തിൽ കുട്ടികളെ നമ്മൾ ചേർക്കുകയും വേണം കുട്ടികളെ പഠിക്കണം മലയാളം നമ്മൾ എല്ലാം ചെറുതിലേ മലയാള മീഡിയത്തിൽ പഠിച്ച് വരുന്നതാണ് മലയാളമാണ് നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ ഇനി വരുന്ന കുട്ടികളും മലയാള മീഡിയത്തിൽ ചേർന്ന് മലയാളം പഠിക്കണം അതൊരു മോശം ഭാഷയായിട്ട് കരുതണ്ട ഒരു കാര്യവുമില്ല നമ്മളെ നമ്മളുടെ ഭാഷയാണ് മറ്റുള്ള ഭാഷപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് മലയാളവും അത് ഒട്ടും മോശമായ ഒരു ഭാഷയല്ല അതുമല്ല നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോമുകളിൽ പല ഓഫീസുകളിലുമുള്ള അപ്ലിക്കേഷൻ ഫോമുകളിൽ എല്ലാം നമ്മൾ മലയാളത്തിൽ തന്നെ എഴുതണം ഇന്ന് കുറെ ഓഫീസുകളിലെല്ലാം മലയാളത്തിൽ തന്നെ അപ്ലിക്കേഷൻ എഴുതിയിട്ട് കൊടുക്കണം പക്ഷേൽ എന്നാലും എല്ലാ കാര്യത്തിലും മലയാളത്തിനൊരു മുൻഗണന കൊടുക്കണം ആ മലയാള ഭാഷക്ക് ഒരു ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ മലയാളികൾക്ക് അത് അതിൻ്റെ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഞമ്മൾ അതിനൊരു വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കണം